ആ ഹലോ ആരായിരുന്നു ആ മരുന്നോ ആ തോപ്രാംകുടി അത് കുറച്ച് കുറച്ച് സമയം ആയല്ലൊ ആക്സിഡന്റ് ആയിട്ട് ആ ബൈക്കും കാറും കൂടെ

ഒരു മൂന്ന് മണി ഒക്കെ ആയി കാണും അത് നിർത്തട്ടെ കട്ടപ്പനയിൽ നിന്നൊരു ബൈക്ക് ഇങ്ങോട്ട് വരികയായിരുന്നു ഇത് ഇവിടെ നിന്ന് മുരിക്കാശ്ശേരിയിൽ നിന്ന് പോയ കാറാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ രണ്ടും കൂടെ ആ വളവിങ്കൽ വെച്ച് കൂട്ടി ഇടിക്കുവായിരുന്നു ആ ബൈക്കുകാർക്ക് ഭയങ്കര സ്പീഡ് ആയിരുന്നു എന്നാണ് പറയുന്നത് കേട്ടത് ഞാൻ ആ ബൈക്കുകാർക്ക് എന്തോ കാര്യമായിട്ട് പറ്റി എന്നാണ് പറഞ്ഞത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി

ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് കേട്ടായിരുന്നു

മ് ആ ആ ആൾക്കാരൊത്തിരി കൂടിയിട്ടുണ്ട് ആ ആശുപത്രിയിൽ കൊണ്ടുപോയി അവരെയൊക്കെ

ആ കഴിഞ്ഞ ദിവസവും ഒരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ മാസം ഒരു അപകടം ഉണ്ടായി ഒരു വളവാണ് അപകട മേഖലയാണ് അവിടം ആ റോഡിന് വീതിയും കുറവാണ് മ് ഹാ ആ റോഡിന് വീതിയും കുറവാണ് രണ്ട് വണ്ടി ഒന്നിച്ച് വന്നാൽ സൈഡ് കൊടുക്കാൻ വലിയ വണ്ടിയൊക്കെ വന്നാൽ ബുദ്ധിമുട്ടാണ് ആ മരണപ്പെട്ടു രണ്ട് ചെറുപ്പക്കാര് പിള്ളേരാണ്

മഴ ആയിരുന്നു നല്ല മഴ ആയിരുന്നു ആ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു

കണ്ടിടത്തോളം കാറുകാരേ എല്ലാവരേയും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കാറ് ചളങ്ങി ഒക്കെ ഇരിപ്പുണ്ട് ബൈക്കും പോയി ബൈക്ക് റോഡിൻ്റെ സൈഡിൽ കിടപ്പുണ്ട് ആ കോട്ടയംകാര് എന്നാ കോട്ടയംകാര് രണ്ട് പിള്ളേരായിരുന്നു ബൈക്കിൽ വന്നത് ആ കാറ് കട്ടപ്പന ഭാഗത്ത് നിന്നാണ് വന്നത് മ് പഠിക്കുന്ന കൊച്ചാ ആ രണ്ട് പിള്ളേരും പഠിക്കുന്ന പിള്ളേരാണ് ചെറുപ്പക്കാര് പിള്ളേരാണ്

ആ ആ ശരി